ഇന്ത്യയിലെ കലാകാരന്മാര്ക്ക് പ്രാധാന്യം നല്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം എന്നാലും കലാകാരന്മാര്ക്ക് ചില സ്ഥലങ്ങളില് അല്ലെങ്കില് ചിലയിടത്ത് അധികം പ്രാധാന്യങ്ങള് അല്ലെങ്കില് അവസരങ്ങള് ലഭിക്കുന്നില്ല കാരണം ഓരോ നമുക്കറിയാം ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളുണ്ട് എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മള് വിദ്യാഭ്യാസത്തില് നമ്മള് പഠിക്കുന്ന കാര്യത്തില് കുറച്ചുകൂടി മുന്പന്തിയില് നില്ക്കാറുള്ളത് ഒരു വ്യക്തി പഠനത്തില് മുന്നോട്ടല്ലെങ്കില് മറ്റേതെങ്കിലും കാര്യത്തില് അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കാം അദ്ദേഹത്തിന് ആ കഴിവായിരിക്കും അദ്ദേഹം പരിപോഷിപ്പിക്കാന് ആഗ്രഹിക്കുന്നത് എന്നാല് നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങള് പറയുകയാണെന്ന് വെച്ചാൽ തീര്ച്ചും തീര്ച്ചയായും അതിനെ എല്ലാം എതിര്ത്ത് പറയുന്നൊരു സമൂഹമാണ് ഉള്ളത് നമുക്കത് കേട്ട് നമ്മളതില് വിഷമിച്ചിരിക്കുന്നവരും ഉണ്ട് അവസരങ്ങള് ലഭിക്കാനും ലഭിക്കാതെ പോയവരുമുണ്ട് ഒരുപാടാഗ്രഹങ്ങളോടെ ഒരുപാട് പ്രയത്നത്തോടെ ഓ പരിശീലനം ചെയ്ത് പിന്നീട് അവര്ക്കത് ലഭിക്കാതെ അല്ലെങ്കില് അവര്ക്കാ അവസരം നഷ്ട്ടപ്പെട്ടു പോവുമ്പോള് ഒരുപാട് സങ്കടകരം തന്നെയാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കില് അവര്ക്കൊരുപാടവസരങ്ങള് നല്കുന്നൊരു രാജ്യമായി ഇന്ത്യ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം കലാകാരന്മാര് നമ്മുടെ സമൂഹത്തില് ഒരു പ്രത്യേക സംഭാവന അവര് അവര് അവര്ക്ക് അവര് നല്കുന്നു അവര്ക്ക് സമൂഹത്തില് പ്രത്യേക സ്ഥാനമുണ്ട്